ഹലോ നേരത്തെ ഞാനൊരു ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ ആ അതെ അപ്പം എന്തൊക്കെ ഞാൻ ഓർഡർ ചെയ്തത് പിന്നെ അഞ്ച് ചിക്കൻ ബിരിയാണി അതായത് ചിക്കൻ ബിരിയാണി അഞ്ചെണ്ണം പിന്നെ അഞ്ച് പ്രോൺസ് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തു പിന്നെ അതായത് കുഴിമന്തി അതായത് ഒരെണ്ണം ഒരു ഫുൾ മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അൽഫാം അതുപോലെ ഒരു പത്ത് പൊറോട്ട പത്ത് ചപ്പാത്തി പിന്നെ അതായത് പൊ പൊറോട്ടയ്ക്ക് വെജ് കറി പിന്നെ നോൺ വെജ് കറി ചിക്കൻ കറി അതായത് ചിക്കൻ ഫ്രൈ ചിക്കൻ ചില്ലി പിന്നെ അങ്ങനെയുള്ള കുറേ കുറേ ഓർഡറു ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വെജിറ്റബിൾ പുലാവ് പിന്നെ ചിക്കൻ പുലാവ് പിന്നെ ചായ അതായത് നമുക്ക് ഒരു വെഡിങ് ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും ബൾക്ക് ആയിട്ട് ഓർഡർ ചെയ്തത് ആ അതെ അതെ അതെ അതെ അപ്പം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഓർഡർ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ജ്യൂസ് ജ്യൂസ് കുറേ ഓർഡർ ചെയ്തിട്ടുണ്ട് അതായത് മാംഗോ പൈനാപ്പിൾ ഓറഞ്ച് മുന്തിരി അവകാഡോ പിന്നെ ഷെയ്ക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് അതായത് ബട്ടർ ഷെയ്ക്ക് പീനട്ട് ബട്ടർ ഷെയ്ക്ക് അങ്ങനെ പിസ്താ ഷെയ്ക്ക് എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയും ഓർഡർ ചെയ്ത സ്ഥലം മാറിപ്പോയി അതായത് ഞാൻ എൻ്റെ എൻ്റെ വീട്ടിലേക്കാണ് ഓർഡർ ചെയ്തത് പിന്നെ പക്ഷേ നമ്മൾ എല്ലാവരും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഹസ്ബന്റിന്റെ വീട്ടിലേക്കാണ് അതായത് നമ്മൾ ഇവിടെയായിരുന്നു ഫംഗ്ഷൻ തീരുമാനിച്ചത് അപ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് അവിടെ അവിടേക്ക് ഫംഗ്ഷന് പോകാനുള്ള ഒരു ഇത് വന്നു അപ്പോൾ വിലാസം ഒന്ന് മാറ്റാൻ വേണ്ടി ഇപ്പോഴത്തെ വിലാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മൊയ്തു കാരക്കൽ ഹൗസ് തിരുനെല്ലിയാണ് ഞാൻ ഓർഡർ ചെയ്ത വിലാസം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിഷാന പീടിക ഹൗസ് തൊഴച്ചാൽ ആണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഇതൊന്ന് മാറാൻ വേണ്ടിയായിരുന്നു കേട്ടോ ആ ഓക്കെ ഇങ്ങോട്ടേക്ക് ഓർഡർ ചെയ്താൽ മതിയേ എല്ലാം എല്ലാ സാധനവും ഇങ്ങോട്ട് എത്തിച്ചാൽ മതി ആ ഓക്കെ ഓക്കെ താങ്ക് യൂ